എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിട്ടിരിക്കുന്നത് എൻ്റെ പഠനകാലത്ത് അത് തന്നെയാണ് പഠനകാലത്ത് എന്ന് പറയുമ്പോൾ എനിക്ക് എന്താ പറയുക കോളേജിൽ ആണെങ്കിലും സ്കൂളിൽ ആണെങ്കിലും പഠിക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ കാരണം പഠിക്കാനുള്ള ഒരു ആ അവസരം കിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാം പഠിക്കുവായിരുന്നു അപ്പോൾ നമുക്ക് അതിനുള്ള കോളേജിൽ പോയി അല്ലെങ്കിൽ നമുക്ക് പിഹെച്ഡി ഒക്കെ ചെയ്യാൻ വേണ്ടീട്ട് ഉള്ള എമൗണ്ട് നമുക്ക് കിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം എല്ലാവരും പുതിയ പുതിയ സ്കൂളില് പുതിയ പുതിയ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് പോകുന്ന കാണുമ്പം ഞാനും കൊതിച്ചിട്ടുണ്ട് പക്ഷെ അത് ഒരിക്കലും എന്റേതായ എന്നെ കൊണ്ട് പറ്റില്ല അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് സങ്കടപെട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ പഠിച്ചു നല്ല സ്കൂളുകളിൽ തന്നെ പഠിച്ച് നല്ല രീതിയില് തന്നെ മാർക്ക് വാങ്ങി ഇപ്പോൾ ഞാന് പിഹെച്ഡി ഒക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു ഗവൺമെൻറ് കോളേജിൽ ഞാൻ എന്ത് ചെയ്യുന്ന് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് അതായത് ശരിക്കും നമുക്ക് നമ്മുടെ ഉണ്ടാകുന്ന ആത്മവിശ്വാസമാണ് നമ്മളെ ഇവിടെ കൊണ്ട് എത്തിച്ചത് ഞാൻ ഒന്നും ആകില്ല എന്ന് പറഞ്ഞടത്ത് പറഞ്ഞ അവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യണം എന്തേലും ഒക്കെ ആയത് ഞാൻ ഇവിടെ വെച്ചിട്ടാണ് എനിക്ക് ഒന്നും ആവില്ലാന്ന് എന്താണ് ഞാൻ പറഞ്ഞ് അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരെ കൊണ്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ മിണ്ടാതെ ഇരുന്നിരുന്നെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിലായിരുന്നു കാരണം എനിക്ക് പഠിക്കാനുള്ള കഴിവുണ്ട് ഞാൻ ആ പഠനം ഉപയോഗിച്ച് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു കുറെ ശ്രമിച്ച് അവിടെ വരെ എത്തി അപ്പം നമുക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ഒരു ആത്മവിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ വേണമെങ്കിലും എത്തിക്കോളും ആ നമുക്ക് നമ്മള് മറ്റുള്ളവർ എന്ത് പറയുന്നു അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് ആര് എന്തെങ്കിലും ചിന്തിക്കുന്നു അത് ഒന്നും നമ്മള് ചിന്തിക്കേണ്ട കാര്യങ്ങൾ ഒന്നും അല്ലെങ്കിൽ നമ്മള് അത് ഒന്നും നോക്കേണ്ട കാര്യമല്ല നമുക്ക് എന്ന് പറയുമ്പോൾ നമ്മളുടെ ലക്ഷ്യം എന്താണോ അത് നിറവേറ്റാൻ വേണ്ടി നമ്മൾ എന്തേലും ചെയ്യുക ഒരുവിധം പഠിച്ച് പഠിച്ച് പിന്നെ ട്യൂഷൻ ഒക്കെ എടുത്തിട്ടായിരുന്നു എൻ്റെ എൻ്റെ പഠനത്തിനുള്ള ചിലവൊക്കെ ഞാൻ നോക്കിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ ചിലവ് ട്യൂഷൻ എടുക്കുമ്പം എനിക്ക് അറിവ് കിട്ടും ആ പൈസ കൊണ്ട് ഞാൻ വീണ്ടും എന്തെയ്യും പഠിക്കും ചെയ്യുമായിരുന്നു അങ്ങനെ പഠിച്ച് പഠിച്ചിട്ടാണ് ഞാന് ഈ ഒരു നിലയിൽ എത്തിയത് എന്ന് പറയാം അപ്പോൾ നമ്മള് ഒരിക്കലും ജീവിതത്തിൽ എന്തു ചെയ്യില്ല നമുക്ക് വെല്ലുകൾ വെല്ലുവിളികൾ വരുന്ന സമയത് നമ്മൾ ഒരിക്കലും തളരരുത് നമ്മളെ കൊണ്ട് എന്തായാലും എന്തെയ്യും എവിടെയെങ്കിലും എത്താൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക മുന്നോട്ട് പൊയ്കൊണ്ടിരിക്കുക